ഞങ്ങളെ പ്രദേശത്ത് കൂടുതലാൾക്കാരും ലാൻഡ് ഫോൺ കണക്ഷനും അതോടൊപ്പം ഫൈബർ ഒപ്റ്റിക് കണക്ഷനുകളാണ് ഉപയോഗിക്കുന്നത് ഡേറ്റ പ്ലാനുകളെല്ലാം തന്നെ അൺലിമിറ്റഡ് പ്ലാനുകളാണ് ഉപയോഗിക്കുന്നത് വീട്ടിൽ സ്മാർട്ട് റ്റി വിയും ഒന്നിലധികം ആഡ്രോയിഡ് ഫോണുകളുമുള്ളപ്പോൾ അൺലിമിറ്റഡ് പ്ലാനുകൾ പലപ്പോഴും നിർബന്ധമായി വന്നിരിക്കുകയാണ് കുട്ടികൾക്കു പഠിക്കുന്നതിന് ജോലി ചെയ്യുന്നതിന് എല്ലാം ഇന്നത്തെ കാലത്ത് ഡേറ്റ ആവശ്യമാണ് നല്ല വേഗതയുള്ള പ്ലാനുകൾ കിട്ടുന്നതിനുള്ള അപര്യാപ്തത കൊണ്ടുകൂടിയാണ് ആളുകൾ വയർലെസ് കണക്ഷനുകളിൽ നിന്നു മാറി ഫൈബർ ഒപ്റ്റിക് കണക്ഷൻസ് നേടുന്നത്